എൻ്റെ വീട്ടിലെന്നു പറഞ്ഞാൽ പശു ഉണ്ട് കോഴി ഉണ്ട് പട്ടി ഉണ്ട് അപ്പം ഞാൻ അതിനൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെറിയൊരു കിടാവിനെ വേടിച്ചതാണ് ഒരു പെൺ കിടാവിനെ വേടിച്ചു പിന്നെ അതിനെ നമ്മൾ കുത്തിവെച്ച് പിന്നെ അതിനിപ്പം രണ്ട് പിന്നെ രണ്ട് പെൺകുട്ടികൾ രണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു ഇപ്പോൾ ഒരു കുട്ടി ഉണ്ട് അതായത് അടുത്ത പ്രസവത്തിലുള്ള പശുവിനും ഒരു കുട്ടിയുണ്ട് പശുവിനെക്കൊണ്ട് ഞങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണമെന്താ വെച്ചാൽ മൂന്നാലു ലക്ഷം രൂപ എങ്ങനെ ആണെങ്കിലും നാലു ലക്ഷത്തിനു പുറമെ നമ്മൾ പാൽ വിറ്റിട്ടു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാലിതത്തീറ്റേൻ്റെ ഇത് കാര്യത്തിനൊക്കെ പൈസയൊക്കെ പോകും പിന്നെ കോഴിയെന്നു പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു പത്ത് കോഴീനെ മേടിച്ചിട്ടുള്ളു അത് ചെറുതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് തന്നെ മുട്ടക്ക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വീട്ടിലേക്ക് തന്നെ മേടിച്ചതാണ് അപ്പം അതിനൊന്നും നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാകില്ല പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിയുണ്ട് ഒരു പൊമറേനിയൻ ഇനം പട്ടിയാണ് അത് നമ്മൾ പണ്ട് വീടിൻ്റടുത്ത് നിന്ന് മേടിച്ചതാണ് അതായത് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു മുവായിരം രൂപ കൊടുത്ത് മേടിച്ചതാണ് പൊമറേനിയൻ ഇനം അതിനിപ്പം ഒരു വയസ്സൊക്കെ ആകാറായി അപ്പം അതാണ് എൻ്റെ വീട്ടിലുള്ള മൃഗങ്ങൾ സമ്പാദിച്ചത് നമ്മൾ പശുവിനെക്കൊണ്ട് മാത്രമേ സമ്പാദിച്ചിട്ടുള്ളു